പണ്ടുകാലങ്ങളിൽ പറയുകയാണെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമേ വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ ആണുങ്ങൾക്ക് മാത്രമേ പഠിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അനുമതി ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്ത് ഇതേപോലെത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ദൂരെ സ്കൂളിൽ പോകുവാനായിട്ട് അപ്പോൾ കുറെ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് സ്കൂൾ കുറച്ചു ദൂരെയാണെങ്കിൽ പോയി വരുവാൻ വേണ്ടി സൈക്കിൾ കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികൾ മോട്ടിവേറ്റ് ആവാറുണ്ട് അങ്ങനെ മോട്ടിവേറ്റ് ഈ വഴിയിൽ കൂടെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ കുറച്ച് കുട്ടികൾക്ക് അവർക്ക് പഠിക്കാൻ തോന്നാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് പഠിക്കാം അതിൽ കുറച്ച് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പല സഹായങ്ങളും ഇന്ത്യ മുഴുവൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് കുട്ടികൾക്ക് കൂടുതൽ ഫലപ്രദമാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നല്ലതാണ് ലാപ്ടോപ്പ് ആയാലും ലാപ്ടോപ്പ് കണ്ട് എന്ന് വെച്ചാൽ ലാപ്ടോപ്പിൽ ഓൺലൈൻ ക്ലാസും വീട്ടിൽ തന്നെ ഇരുന്നും ഒക്കെ കാണാൻ പറ്റും ഒരു ഇടവും പോവേണ്ട ആവശ്യമില്ല അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് പഠിക്കാം പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പൊതുവേ പൊതുവേ കൂടുതൽ വെളിയിൽ ഇറക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ കൊടുത്ത് വീട്ടിലിരുത്തിയും വീട്ടിൽ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ക്ലാസ് എടുക്കാനുള്ള സജീകരണങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റും ലാപ്ടോപ്പ് വഴി അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു വളരെ നല്ല ഒരു കാര്യമാണ് ഇന്ത്യയിൽ വിവിധ തലങ്ങളിൽ ഇങ്ങനെ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾക്ക് കൂടുതൽ മുൻഗണനയുണ്ട് മുൻഗണന കൊടുത്ത് അവരെ പഠിപ്പിക്കുക എന്നത് അവർക്കൊരു ലക്ഷ്യമാണ് അപ്പോൾ ആൺകുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും പോകാം നല്ല ഫ്രീഡം ഉണ്ട് പക്ഷെ പെൺകുട്ടികൾ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വീട്ടിൽ നിന്നും വെളിയിൽ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പഴാ ബുദ്ധിമുട്ട് ഒക്കെ നമുക്ക് നേരിടാൻ ഇതേപോലെത്തെ സഹായങ്ങൾ ചെയ്യുന്നതു വഴി നമുക്ക് സാധിക്കാൻ പറ്റും ആ ലാപ്ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞപോല ആ ലാപ്ടോപ്പ് സൈക്കിൾ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള പല ടെക്നോളജിപരമായ പല കാര്യങ്ങളുണ്ട് അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്ക നമ്മളെ കൂടുതൽ സഹായിക്കും പണ്ട് പണ്ടുകാലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുകയായിരുന്നു പക്ഷേ അന്ന് നമുക്ക് വിദ്യാഭ്യാസം ആഗ്രഹിക്കുമെങ്കിലും കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുന്ന കാലഘട്ടമാണ് അപ്പോൾ വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുന്ന കാലഘട്ടത്ത് നമ്മൾ അത് കുറച്ച് ഡൊണേറ്റ് ചെയ്ത് എല്ലാം കൊണ്ട് നമുക്ക് ഒരു ഇടവും പോവാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് ഡൊണേറ്റ് ചെയ്ത് നമ്മള് എല്ലാം വെട്ടി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ കുറച്ച് ഡൊണേറ്റ് പാവപ്പെട്ടവർക്ക് അനാഥർക്ക് കുട്ടികൾ എത്രയോ കുട്ടികളുണ്ട് അനാഥ കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്പോൺസർ ചെയ്യണം അതെല്ലാം ദൈവത്തിൻ്റെ ഫലങ്ങൾ ദൈവം നമുക്ക് തരുന്നു നമ്മൾ കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ദൈവം നമുക്ക് തിരിച്ചും തരുന്നു അതേപോലെ ദൈവം നമക്ക് തരും എത്ര കൊടുത്ത് നമുക്ക് അതിനെക്കാട്ടി ഇരട്ടി നമുക്ക് ദൈവം തരുമെന്ന് എന്നൊരു വിശ്വാസം വേണം അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ മനസ്സായിരിക്കും വിദ്യാഭ്യാസ രംഗത്താണ് ഇപ്പോൾ ഇപ്പം വിദ്യാഭ്യാസ രംഗമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത് ആ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസം കുട്ടിക്കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം വേണ്ടാത്ത കിട്ടാത്ത കുറേ കുട്ടികളുണ്ട് അവർക്ക് ഒരു നല്ല പ്രചോദനമാണിത്